പുതിയ തലമുറ കൃഷിയോട് കുറച്ച് ഇപ്പോൾ താത്പര്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു താത്പര്യം വരുത്താനായിട്ട് നാം ഓരോരുത്തരും ശ്രമിക്കണം പുതിയ തലമുറയോ എപ്പോഴും ജംഗ് ഫുഡ് അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡ്ഡിനെ ആശ്രയിച്ചാണ് ഇന്ന് കാലത്ത് ജീവിക്കുന്നത് ആ ഒരു രീതി മാറിയാൽ തന്നെ സ്വന്തമായിട്ട് ഒരു ചെടി നടുക അതിൽ ഒരു പൂവുണ്ടാകുന്നത് അതിലൊരു എന്തെങ്കിലും പഴങ്ങളുണ്ടാകുന്നത് അതെല്ലാം കണ്ട് ആസ്വദിച്ച് അതിനെ പരിപാലിക്കാനുള്ള ഒരു മനസ്സ് നമ്മുടെ മക്കളോട് അല്ലെങ്കിൽ വരുന്ന തലമുറക്ക് നമ്മൾ പറഞ്ഞ് കൊടുത്തെങ്കിൽ മാത്രമേ ഈ പ്രകൃതി നല്ല രീതിയിൽ നിലനിൽക്കുന്നുള്ളു ഒരു ചെടി നശിപ്പിക്കുകയാണെങ്കിൽ പത്ത് ചെടി അതിന് മുൻപ് വെച്ചിരിക്കണം എന്ന ഒരു ബോധം നമ്മുടെ മക്കളെ അല്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയെ നാം ഓരോരുത്തരും ഓർമ്മപ്പെടുത്തണം പുതിയ തലമുറ കുറച്ചൊക്കെ കൃഷി ചെയ്യാനുള്ള താത്പര്യം ഇന്നത്തെക്കാലത്തെ കുട്ടികൾക്ക് വാ വരുന്നുണ്ട് അത് ഉത്സാഹം കൊണ്ട് ആണോ കൗതുകം കൊണ്ടാണോ എന്നറിയില്ല അതിനെ ആ താത്പര്യത്തെ നിലനിർത്തി പോകും നിലനിർത്താൻ വേണ്ടി നമ്മളോരോരുത്തരും അവരോട് നല്ല രീതിയിൽ ഇതിനെ താത്പര്യപ്പെടുത്താനുള്ള വഴികളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ഈ രീതിയിലേക്ക് നാം ഓരോരുത്തരും പുതിയ തലമുറയെ കൊണ്ട് വരേണ്ടത് ആവശ്യമാണ്